ഇൻഡ്യയിലെ വിദ്യാഭ്യാസവും മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം ടഫാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ളിൽ രണ്ടു ദിവസം മാത്രമേ ക്ലാസ്സുള്ളൂ പക്ഷേ അവർക്ക് അത് കഴിഞ്ഞു പാർടൈം ജോലികൾക്കൊക്കെ പോകാം കാശുണ്ടാക്കാൻ സാധിക്കും പക്ഷേ ഇൻഡ്യയിൽ അങ്ങനെയല്ല എല്ലാ ദിവസവും ക്ലാസുണ്ട് ആ ക്ലാസിൽ പോകും മുന്നേ എല്ലാ പലതരം ടെസ്റ്റ് ബുക്കുകളും ഓവർലോഡായിട്ട് സാധനങ്ങളാണ് കുട്ടികൾ ചുമന്നുകൊണ്ടു പോകുന്നത് അത് വൈകുന്നേരം വരെ ക്ലാസ്സുള്ളതുകൊണ്ട് എല്ലാ ദിവസവും വിദേശരാജ്യങ്ങളിലുള്ള പിള്ളേർക്കാണെങ്കില് ടെസ്റ്റ് ബുക്കുകൾ ചുമന്നോണ്ട് നടക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇൻ്റർനെറ്റ് ലാപ്ടോപ്പ് ഫോണ് ഒക്കെ ഉപയോഗിച്ചാണ് അവർ വിദ്യാഭ്യാസം നടത്തുന്നത് ഈ എല്ലാ ദിവസവും ക്ലാസ്സില്ലാത്ത തന്നെ അവർക്ക് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നില്ല പക്ഷേ ഇവിടെ ആണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തിലെ വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികള് അവർക്ക് പ്രയോജനമായ രീതിയിൽ എന്നു പറയാൻ പറ്റത്തില്ല എങ്കിൽ കൂടിയും ഓവറായിട്ടുള്ള വെയ്റ്റും ചുമന്നാണ് അവർ സ്കൂളിൽ പോകുന്നത് ഇത് ചുമട്ടു തൊഴിലാളികൾ പോകുന്നപോലെ അതുകൊണ്ട് തന്നെ ഇൻഡ്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല ഇവിടുത്തെ ഇവിടെ അവിടെ ലഭിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ ലഭ്യമല്ല അതുപോലെതന്നെ കുഞ്ഞുങ്ങൾ ചോറ് വീട്ടുകളില്നിന്ന് കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലായിരിക്കും ഫുഡ് ചിലപ്പോള് സ്കൂളിൽ ക്രമീകരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവർ സ്കൂളില് വീടുകളിൽ നിന്ന് സ്കൂ കൊണ്ടുപോകുന്നത് ചില രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ക്ലാസ് ഉള്ളത് തന്നെ ഉച്ചവരെ അല്ലെങ്കിൽ നാല് മണിക്കൂറൊക്കെയെ ഉള്ളൂ ഇത് രാവിലെ വെളുപ്പിനെ പോയി വൈകുന്നേരം വരുന്ന സാഹചര്യമാണ് ഇൻഡ്യയിലെ കുട്ടികൾക്ക് ഉള്ളത്